എനിക്ക് ഒരു ഓട്ടോ വേണ്ടിയിരുന്നു ഞാൻ ഇവിടെ വാണിയമ്പലത്തിൽ നീന്നാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ എനിക്ക് മഞ്ചേരി അടുത്തൊന്ന് പോവണം അവിടെ ഒരു കല്യാണം ഉണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് ഇരുപത് മിനുട്ടിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റുമോ പിന്നെ മഞ്ചേരി പോയിട്ട് കല്യാണം കൂടിയിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നുരണ്ട് കടകളിലും പോവണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വെയ്റ്റിംഗ് ചാർജ് കൂടുമോ പിന്നെ എനിക്ക് നേരം കുറച്ച് വൈകുവാണെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പോൾ അത് വരെ ഒക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ പിന്നെ എന്തേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അപ്പോൾ എന്താണ് വേറെ എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ വേറെ ട്രിപ്പ് എന്തെങ്കിലുമുണ്ടോ പോവാൻ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം വൈകും അപ്പോൾ പൈസ എത്രയാവും ആവൂ അത്ര അത്ര പൈസയൊക്കെ ആവുമോ അത്ര എന്താണ് അത്ര പൈസയൊന്നും എൻ്റെ കയ്യിലില്ല പിന്നെ അത്രയൊക്കെ ആവുമല്ലേ അപ്പോൾ വെയ്റ്റിംഗ് ചാർജ് ഒക്കെ കൂട്ടിയിട്ട് ആണോ അപ്പോൾ അത്ര പറഞ്ഞത് പിന്നെ എല്ലാം കുറച്ചുകൂടെ ഒക്കെ കുറയുകയാണെങ്കിൽ കൊറച്ച് പിന്നെ പറ്റി എന്നാൽ എന്താണ് വരാൻ പറ്റുമോ പറ്റും എന്നുവെച്ചാൽ നിങ്ങൾ വേഗം വരുമോ ഞാൻ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വന്നുനോക്കിയാൽ ആ വണ്ടിയിൽ അങ്ങോട്ട് പോവാമായിരുന്നു